വാർത്താ ചർച്ചകൾ ഞാൻ എപ്പോഴും കാണുന്നതാണ് കാരണം ഇലക്ഷൻ വരുന്നതിനുമുമ്പ് എല്ലാ ദിവസവും എല്ലാ ചാനലുകളിലും ഉണ്ടാകുന്നതാണീ ചർച്ചകള് അല്ലെങ്കില് എന്തെങ്കിലും പ്രത്യേകിച്ചെന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോള് ഇതൊരു ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഉൾക്കൊള്ളിക്കുന്നൊരു ചർച്ചയാണ് പല ചാനലുകളും അങ്ങനെയാണ് ഉണ്ടാവാറ് അതില് എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ലൊരവതാരകന് എന്നു പറയുന്നത് അഭിലാഷ് അതുപോലെ തന്നെ ഇത് മീഡിയ വണ്ണിൻ്റെ ചാനൽ എഡിറ്റർ അഭിലാഷ് അതുപോലെ തന്നെ അരുൺ കുമാർ മറ്റേ ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ ടി വിയുടെ അരുൺ കുമാർ അങ്ങനെ പല നല്ല അവതാരകരും ഇപ്പോള് അവെയ്ലബിളാണ് പല വാർത്താ മാധ്യമങ്ങളും പക്ഷേ അവതാരകര് ഏതെങ്കിലും ഒരു സൈഡിൽ പക്ഷം പിടിക്കുമ്പോൾ ആ ചർച്ച കൊണ്ടൊരുപകാരമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അവതാരകരൊക്കെ ഞാനിപ്പോള് പറഞ്ഞ അവതാരകാരൊക്കെ ഏകദേശം നിഷ്പക്ഷത നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ടുതന്നെ ആ ഒരു ചർച്ചകളെപ്പോഴും നല്ലൊരു ഗംഭീരമായ ചർച്ചകൾ തന്നെയാണ് കാരണം എല്ലാവരെയും എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാവരെയും ഇതേ കൂടുതൽ ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടാണ് കാര്യമായിട്ട് ഇവരൊക്കെ ചർച്ചകൾ തുടങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ചർച്ചകളെപ്പോഴും നല്ലൊരു മാധ്യമശ്രദ്ധകളും അതുപോലെ തന്നെ എപ്പോഴും ഫേമസ് ആകാറുണ്ട് പല ചാനലുകളിലും ചർച്ചകൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാര്യത്തെ ആസ്പദമാക്കി അല്ല ഉണ്ടാകാറുള്ളത് അല്ലെങ്കില് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ടല്ല ഉണ്ടാവാറുള്ളത് എല്ലാവരും എല്ലാ ഇപ്പോള് പൊളിറ്റിക്കലാണെങ്കിൽ എല്ലാ പാർട്ടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളാണ് എല്ലാവരെയും കൂടിയിട്ടുള്ള ഒരു ഗംഭീര ചർച്ചകളൊക്കെയാണ് ഇപ്പോള് ഉണ്ടാവാറ് അതില് ഈ അഭിലാഷെന്ന് പറയുന്നത് ഒരു നല്ല അവതാരകനാണ്